ഹലോ ഊബർ ഡോട്ട് കോം അല്ലേ ടാക്സി ബുക്ക് ചെയ്യാനായിരുന്നു നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം വരെ ഒന്നു പോവാനായിരുന്നു അതെ പത്തനംത്തിട്ട ടു തിരുവനന്തപുരം അവിടെനിന്ന് എത്ര രൂപയാവും ഗൂഗിൾ പേ ചെയ്താൽ മതിയോ അതോ ക്യാഷായിട്ട് നൽകണോ എങ്ങനെയാണ് അഡ്വാൻസ് നൽകണോ ഇവിടെനിന്ന് തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പണം നല്കിയാൽ മതിയോ എത്ര രൂപയാവും അഡ്വാൻസ് എങ്ങനെയാണ് തരേണ്ടത് അവിടെ എത്തിയിട്ട് പൈസയായിട്ട് തന്നാൽ മതിയല്ലേ അതോ അതിനെന്തെങ്കിലും മാറ്റം വരുമോ ഇപ്പം പൈസ അവിടെ ചെന്നിട്ട് കയ്യിൽ നേരിട്ട് തരികയാണോ അതോ ഗൂഗിൾ പേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓൺലൈൻ സാധ്യതകൾ പ്രയോജനപെടുത്തുകയാണോ വേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണെങ്കിലും പറയാം